മലയാള ഭാഷഉയിൽ ഇഷ്ടമുള്ള വാക്കുകള് പറയുമ്പോൾ കുറേ അധികം വാക്കുകളുണ്ട് അതായത് അമ്മ അച്ഛൻ സ്നേഹം കൂട്ടുകാര് അങ്ങനെ നമ്മളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ വാക്കുകൾ അങ്ങനെ ആ ബന്ധങ്ങളുടെ മൂല്യം ആ ബന്ധങ്ങളായിട്ടുള്ള ആത്മബന്ധം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ വാക്കുകളോടൊക്കെ ഭയങ്കര കടപ്പാട് ഇപ്പോൾ എന്താ പറയുക ടീച്ചർ അല്ലെങ്കിൽ അദ്ധ്യാപകൻ അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മുടെ ഗുരു അങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസിലേയ്ക്ക് ഓരോ മുഖം നമുക്ക് ഓട്ടോമാറ്റിക്ക് ആയിട്ട് കടന്ന് വരും ഇപ്പോൾ നമ്മുടെ അച്ഛൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അച്ഛൻ നമ്മുടെ മുഖം മനസിലേയ്ക്ക് വരികയാണല്ലോ അതുപോലെ ഓരോ വാക്കുകള് കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരെ അതായത് നമുക്ക് അവരെ നമ്മള് ചില സമയത്ത് ഇങ്ങനെയൊക്കെ കണ്ടിരുന്നുവെന്നുള്ളത് നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ ആയിരിക്കും യാദൃശ്ചികമായിട്ട് ഓരോ വാക്കുകള് കേൾക്കുമ്പോൾ ആയിരിക്കും എന്താ പറയുക അവരുടെ മുഖം ഇങ്ങനെ നമുക്ക് തന്നെ മനസിലാവുക പെട്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ നമ്മുടെ ഗുരു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരാളുടെ മുഖം അതായത് ഇപ്പോൾ പഠിപ്പിച്ച കുറേ ടീച്ചറുമാരുണ്ടാകും പക്ഷെ അതുവെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു നമുക്കൊരു പ്രത്യേകമായിടുള്ള ടീച്ചറോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ടീച്ചറിൻ്റെ മുഖം പെട്ടെന്ന് ഓർമ്മ വരും അങ്ങനെ അതൊക്കെ അപ്പോൾ അങ്ങനത്തെ കുറേ വാക്കുകളും പ്രയോഗങ്ങളും പിന്നെ പ്രയോഗങ്ങളെന്ന് പറയുന്നത് പഴഞ്ചൊല്ലും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് കാരണം അതിലൊക്കെ ഒരുപാട് അർത്ഥം കാര്യങ്ങളൊക്കെ ഉണ്ട് അന്തരാർഥങ്ങൾ കൂടുതലായിട്ടുള്ള ഈ എന്താ പറയുക വാക്കുകളാണ് നമുക്ക് പഴഞ്ചൊല്ലുകളായിട്ട് വരുന്നത് ചൊട്ടയിലെ ശീലം ചുടല വരെ അങ്ങനത്തെ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലാതീതമാണ് ഇങ്ങനത്തെ പഴഞ്ചൊല്ലും കാര്യങ്ങളൊക്കെ അത് ഒരു ഇന്ന കാലം എന്നൊന്നുമില്ല എല്ലാ കാലത്തും ഉപയോഗപ്രദമാകുന്ന രീതിൽ സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണീ പഴഞ്ചൊല്ലും കാര്യങ്ങളൊക്കെ പിന്നെ മലയാള ഭാഷ സംസാരിക്കുന്നതിൽ വളരെ അധികം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് പിടി കൊടുക്കാത്തൊരു ഭാഷയാണ് വേറെ പുറത്തുനിന്ന് ഇപ്പോൾ വേറൊരു ഭാഷ സംസാരിച്ച് ശീലിച്ച് വന്നൊരാൾക്ക് പെട്ടെന്ന് മലയാളം പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടുതന്നെ പിന്നെ നമ്മുടെ മലയാളഭാഷ ശ്രേഷ്ഠഭാഷ ആയിട്ട് കണക്കാക്കപ്പെടുന്നൊരു ഭാഷയാണ് അപ്പോൾ അതൂകൂടി പിന്നെ നമുക്ക് നമ്മുടെ മലയാളഭാഷ ഏതൊരു മലയാളിക്കും ആഷ് ആസ് യൂഷ്വൽ ഏതൊരു മലയാളിക്കും ഭയങ്കര അഭിമാനം ഉൾക്കൊള്ളാവുന്നതും കൊടുക്കുന്നതും ആയൊരു ഭാഷയാണ്